സൈക്കിള് നല്ല രീതിയിൽ പരിപാലിക്കാനുള്ളതെന്ന് വച്ചു കഴിഞ്ഞാൽ സൈക്കിള് അത്യാവശ്യം നല്ല രീതിയിൽ കഴുകി ഇപ്പം എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ കഴുകി വൃത്തിയായിട്ട് വയ്ക്കുക മഴ നനയിക്കാണ്ട് വയ്ക്കുക തുരുമ്പ് കയറാണ്ടിരിക്കാനുള്ളത് നോക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വേഗം മാറ്റുക ഇല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും ഒക്കെ പോയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെടും കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടയറൊക്കെ പഞ്ചറായി ചില സ്ഥലങ്ങളിൽ ടയറൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചറായ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ദീർഘ ദൂര യാത്രയ്ക്കൊക്കെ പോവുമ്പോൾ പഞ്ചറായി കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊരു പഞ്ചറ് കട പോലും ഉണ്ടാവില്ല അപ്പം നമ്മൾ മെയിൻ ആയിട്ടും നല്ല ടയറൊക്കെ യൂസ് ചെയ്യുക ഇപ്പം നല്ല ട്യൂബ് ഒക്കെ യൂസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം എവിടെയാണെങ്കിലും ഒരു യാത്ര പോവാൻ വേണ്ടീട്ട് നോക്കേണ്ടത് ചില സ്ഥലം നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് പിടിക്കും കാരണം ഓടിയാലും ഓടിയാലും എത്താത്ത വഴികളിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ ചില സ്ഥലങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് പിടിക്കുന്ന ഒരു പ്രതീതിയാണുള്ളത് അപ്പം അത്യാവശ്യം നല്ല രീതി നല്ല രീതിയിൽ സൈക്കിളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ യാത്ര പോവാനും മടുപ്പിക്കാണ്ട് പോവാനും നമുക്ക് തോന്നും ഇപ്പോൾ എന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ ഇങ്ങനെ വണ്ടിക്കെന്തെങ്കിലും ഒച്ചപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് വരും വണ്ടി നന്നാക്കാനൊരു സ്ഥലമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് മടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്